എൻ്റെ ചെറുപ്പത്തിലെ തന്നെ എന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും ചാച്ചനുമൊക്കെ കൂടെ എന്നെ തയ്യൽ പഠിക്കാൻ വിട്ടിരുന്നു അങ്ങനെ ഞാൻ പോയി തയ്യൽ പഠിച്ചു പോയി ഒരു ടീച്ചറിൻ്റെ അടുത്തു പോയാണ് തയ്യൽ പഠിച്ചത് അങ്ങനെ പഠിച്ചിട്ട് ഈ എല്ലാം പഠിച്ചു എല്ലാം തുന്നാൻ പഠിച്ചു കുറച്ചൊക്കെ ആദ്യമൊക്കെ പാടായിരുന്നു എങ്കിലും എല്ലാം നല്ലതുപോലെ തുന്നാനൊക്കെ പഠിച്ചു അങ്ങനെ കുറച്ചുപേരൊക്കെ തയ്ക്കാനൊക്കെ കൊണ്ടുതന്നു അതിന് ഏറ്റവും കൂടുതൽ പാട് ബട്ടൺ ബട്ടണുകൾ തുന്നാനാണ് ആദ്യം പഠിപ്പിച്ചത് അങ്ങനെയെല്ലാം തയ്ച്ച് തയ്ച്ചൊക്കെ പഠിച്ചു ബട്ടൻസ് വേണം കൊളുത്ത് വേണം നൂല് സൂചി മിഷീൻ സൂചി കൈ തയ്യൽ തയ്ക്കാനുള്ള സൂചി ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളെല്ലാം വേണം അതിന് പിന്നെ മിഷൻ എന്തെങ്കിലും കേടു വന്നെന്നാൽ അത് നന്നാക്കുവാനും ഒക്കെ പണിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങന ഈ മെഷീന് ഡെസ്റ്റ് സ്കോട്ട് ഇതു കൂട്ടേണ്ടി വരുന്നതായി ഈ നൂല് ചുറ്റുന്നത് ഇതൊക്കെയുണ്ട് എംബ്രോയിഡറി ചെയ്യാനുള്ളത് പിന്നീട് വേറെ അത് കഴിഞ്ഞാൽ മേടിച്ചത് എംബ്രോഡറി ചെയ്യാനും പഠിച്ചു അതിൻ്റെ മെഷീനും മേടിച്ചു എല്ലാം അങ്ങനെ ഒത്തിരി പേർ തയ്ക്കാനുള്ളതെല്ലാം കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തു അങ്ങനെ തയ്ച്ച് കൊണ്ടിരുന്നു അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ തയ്ക്കുമ്പം ചിലവർക്ക് അത് ഭംഗി ഒക്കാതെ വരികയും അവർ വന്ന് ചിലപ്പം എന്തെങ്കിലും അയ്യോ അത് അങ്ങനെ അല്ല പറ്റിപ്പോയി ഇങ്ങനെയാണ് തയ്യ്ക്കേണ്ടത് തയ്ച്ചത് ശരിയായില്ലെന്നൊക്കെ പറയും പിന്നെ നമ്മളൊന്നുകൂടി പരിശ്രമിക്കും പിന്നെ പുറകോട്ട് അത് കുറേയൊക്കെ അഴിച്ചും ഒക്കെ തയ്ക്കേണ്ടതായിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ല ഒരു നല്ലയൊരു നിത്യ വരുമാനമാണ് ഒരു പെൺപിള്ളേരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വരുമാനമാണ് അത് അങ്ങനെ ഒരു തയ്യൽ മെഷീനുള്ളതും തയ്ക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞ് കുറേയൊക്കെ നാൾ കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞു വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞപ്പോൾ അത് ചെല്ലുന്ന വീട്ടിലായാലും നിങ്ങൾക്ക് തയ്ക്കാനൊക്കെ ഉള്ള നല്ല ഒരു ഇതാണ് അതൊരു വരുമാനമാർഗ്ഗം പോലെ പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പോൾ അങ്ങനെ തന്നു വിടുമായിരുന്നു അങ്ങനെ എനിക്കത് എന്നെ വിട്ട വീട്ടിലേക്ക് എനിക്ക് തന്നു വിട്ടു അവിടെപ്പോയി അവിടെ നിന്ന് ഒത്തിരി തയ്യലുകൾ വീട്ടിലുള്ളവർക്കും ഒക്കെ തയ്ച്ചു കൊടുക്കാൻ പറ്റും നമ്മക്കൊരു ചെറിയ തുണി എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചാൽപ്പോലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ വേറൊരു മെഷീൻ വളരെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരില്ല നമ്മൾക്കതെല്ലാം അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ തയ്യൽ മെഷീനുംകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ചെറിയ ചെറിയ തൂവാലകൾ പൂക്കൾ തുന്നുക പള്ളിയിൽ അകത്തുള്ള ആവശ്യങ്ങൾക്കുള്ള അതാ പിന്നെ ഇങ്ങനെ ഈ കർട്ടൻ തയ്ക്ക്ക അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ തയ്ക്കാനൊക്കെപ്പറ്റി അങ്ങനെ ഞാനൊരുപാട് തുണികൾ തയ്ച്ചു പിന്നെ ഇമ്മിടി പൈസയൊക്കെ ഉണ്ടാക്കി വരുമാനമാർഗ്ഗമൊക്കെ ആയി ഈ ആ മെഷീന് ആദ്യത്തേത് പഴയതായിരുന്നു അതുതന്നെ ഉഷയെന്നും പറഞ്ഞ ആ ഒരു കമ്പനിയുടെ മെഷീനായിരുന്നു ആ മെഷീൻ കാലക്രമേണ അത് ഇപ്പം പഴക്കം ചെന്നുപോയി അത് കഴിഞ്ഞപ്പം പുതിയ കമ്പനിയുടെ മെഷീന് ഇറങ്ങിയും അത് കഴിഞ്ഞൊരു മെറിറ്റ് എന്നു പറയുന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു അത് മേടിച്ചു അതും കുറച്ചുനാൾ കഴിഞ്ഞപ്പം പോയി പിന്നെ പഞ്ചായത്തിൽനിന്ന് ഇങ്ങനെ ആനുകൂല്യം രീതിയിലൊക്കെ മെഷീനൊക്കെ തന്നു അങ്ങനെ മിഷ്യൻ കൊണ്ട് എൻ്റെ ജീവിതമാർഗ്ഗം എനിക്കൊരു വളരെ ഏറെ സഹായകമായ രീതിയിൽ ഞാൻ ഒത്തിരി പേർക്ക് തുണികൾ തയ്ച്ചു കൊടുത്തു സ്വന്തമായിട്ടത് തയ്ച്ചു അവനവൻ്റെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ളത് തുണികൊണ്ട് തയ്ക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ മെഷീനെന്നു പറഞ്ഞാൽ ഏതാ ഇതിൽ കൂടുതലും നമുക്ക് കാര്യങ്ങൾ മെച്ചപ്പെടാൻ സാധിച്ചു ഈ മെഷീനുള്ളതുകൊണ്ട് ഒത്തിരി കമ്പിളിയുടെ വസ്ത്രങ്ങളൊന്നും തുന്നിയിട്ടില്ല അല്ലാത്ത വല്ല ഇരട്ട സൂചിയിൽ ഡബിൾ മെഷീൻ സൂചിയിലിടുന്ന മെഷീനൊക്കെ മേടിച്ചിട്ട് നല്ല നൂല് സിൽക്കിൻ്റെ നൂലുകളും ഒക്കെ ഇട്ട് തയ്ച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുറേയൊക്കെ മെച്ചപ്പെടാൻ സാധിച്ചു കാരണം തയ്യലുകൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ട് നമ്മളൊരു തയ്യൽ പഠിച്ചാൽ ആ തയ്യൽ മെഷീനും കൂടെ വാങ്ങിയാൽ നമ്മുടെ ഒരു കുടുംബത്തിന് അത്യാവിശ്യം ഒരു കുടുംബത്തെ ഒരു വീട്ടമ്മയ്ക്ക് ഒരു കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ചിലവാക്കാനൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കാൻ സാധിക്കും ഒരു മിഷീനെന്നു പറഞ്ഞാൽ അത്രയും ഏറെ ഗുണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഗുണങ്ങൾ എനിക്കുണ്ടായിരുന്നു